ഇപ്പോൾ എൻ്റെ കുടുംബം എങ്ങനെയാണ് ആഘോഷിക്കുന്നതെന്ന് ഒക്കെ വച്ച്കഴിഞ്ഞാല് കൂടുതലായിട്ടും ഞാൻ ഒരു ഹിന്ദു ആണ് അപ്പോൾ ഹിന്ദു എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമ്മള് കൂടുതല് ഉത്സവങ്ങളാണ് ആഘോഷിക്കാറുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താന്ന് വച്ച് കഴിഞ്ഞാല് ഇപ്പം ഞാൻ തന്നെ ശബരിമലയ്ക്ക് മാലയിടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പം ശബരിമലയ്ക്ക് മാല ഇടുകാന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമ്മള് നാപ്പത്തൊന്നു ദിവസം നോമ്പ് നോറ്റ് വ്രതം എടുത്ത് രാവിലെ രാവിലെ എണീറ്റിട്ട് കുളിക്കുക ആ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നേ മത്സ്യം മാംസം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഭക്ഷിക്കാണ്ട് ഇരിക്കുക അപ്പം അങ്ങനെ ഒക്കെ ചെയ്തിട്ടാണ് കൂടുതലായിട്ടും നമ്മള് എന്താ പറയുക ആ ശബരിമലയ്ക്കും അങ്ങനെ ഒക്കെ പോകാറുള്ളത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നാലമ്പല ദർശനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതിന് നമ്മള് നോമ്പ് എടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് പിന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് അതായത് നമ്മുടെ പഴനി പോവുക അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ചെയ്യണം അപ്പം അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമ്മള് കൂടുതലായിട്ടും ഈ എത്രയോ വീടുകള് ദർശിച്ചിട്ട് നമ്മളൊരു ഒരു ഇത് വയ്ക്കും അപ്പോൾ അങ്ങനെ വേണം നമ്മള് അതിന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ചെയുന്നത് അങ്ങനെ ആയിരിക്കും ഭക്ഷണം ഫുൾ നമ്മള് പിന്നേ വെജ് വെജിറ്റേറിയൻ മാത്രമാണ് ഭക്ഷണം കഴിക്കാറ്